റെഡ്മി നോട്ട് എൻ എസ് ആണ് എൻ്റെ മൊബൈൽ ഇപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഭയങ്കരമായിട്ട് ഫോണങ്ങ് ചൂടാകും നമ്മളൊരു സോഷ്യൽ മീഡിയ വാട്സ്ആപ്പ് ഫേസ് ബുക്ക് ഇൻസ്റ്റഗ്രാം ഇതെല്ലം യൂസ് ചെയ്യുന്നതാണ് പൊതുവെ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് നമ്മളിതൊക്കെ യൂസ് ചെയ്തൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഫോൺ ഭയങ്കരമായിട്ടങ്ങ് ഹീറ്റാകും ഞാൻ മെയിൻ പർപ്പസ് ഫോൺ റെഡ്മി നോട്ട് എൻ എസ് സെലക്റ്റ് ചെയ്യാൻ കാരണം അതിൻ്റെ ക്യാമറ ക്ലാരിറ്റി കണ്ടിട്ടാണ് പക്ഷെ നമ്മളാ എടുത്ത ടൈമിലുള്ള ക്ലാരിറ്റിയല്ലാണ്ട് യൂസ് ചെയ്തൊരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ഒരു ടു ത്രീ മന്ത്സ് ടു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബ്ലർ ഒരു ബ്ലർറൊക്കെ വന്ന് തുടങ്ങി ക്യാമറയിൽ നമുക്ക് വലിയൊരു ബെനഫിറ്റില്ലാണ്ടായി പോയി പിന്നെ പിന്നെന്താ പറയുക ഫോൺ ഭയങ്കര ലാഗ് ആകും ചില സമയത്ത് ഭയങ്കരമായിട്ട് ഹേങ്ങായി സ്ട്രക്ക് ആയി നിൽക്കും ഈ ചൂട് കൂടുമ്പോൾ ആണോ എന്ന് അറിയില്ല പിന്നെ നമ്മൾ മോസ്റ്റ് ഫുൾ പ്രീഫെറായിട്ട് ഈ ഫോണെടുക്കാൻ കാരണം ഗെയിമിങ്ങ് ഗെയിമിങ്ങിന് നല്ല സോഫ്റ്റ് വെയർ ആണെന്നാണ് അവർ പരസ്യം കൊടുത്തിരുന്നത് പക്ഷെ ഫോണെടുത്ത് നമ്മളതൊക്കെ യൂസ് ചെയ്തപ്പം ആ ഗെമിങ്ങിന് വേണ്ട കറക്റ്റ് സോഫ്റ്റ് വെയറൊ കാര്യങ്ങളൊ ഒന്നും നമുക്ക് തന്നെ ഈ ഫോണിൽ അവൈലബിൾ അല്ല